നമ്മുടെ പ്രദേശത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് നമുക്കറിയാവുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഒക്കെ ഉണ്ട് അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ നമുക്ക് പറയാം നമ്മുടെ അതായത് നമുക്ക് അടുത്തറിയാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് മെയിനായിട്ട് നമ്മുടെ പ്രസിഡൻറ്റ് മെമ്പറ് അങ്ങനെയുള്ളവരെയൊക്കെയാണ് കൂടുതൽ നമുക്ക് അടുത്തറിയാൻ പറ്റുന്നത് അവരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു പൗരൻ എന്ന നിലയില് ഞാൻ പറയുവാണെങ്കില് അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് നമുക്ക് ഒരു വിധം സഹായം അവര് നമുക്ക് അങ്ങനൊന്നും തരുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വോട്ട് കിട്ടണ്ട സമയം മാത്രമാണ് നമ്മളെ അവര് ആശ്രയിക്കുന്നത് അല്ലാത്ത സമയം നമുക്ക് അവരുടെ ഒരു സഹായവും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയാം വോട്ട് കിട്ടുന്ന സമയത്ത് അവര് നമ്മളെ വീട്ടില് വന്ന് ചിലപ്പോൾ നമ്മുടെ കാല് വേണമെങ്കിൽ പിടിക്കും വോട്ടിന് വേണ്ടി അവര് പറയും നിങ്ങൾക്ക് വീടാക്കി തരാം അതേപോലെ ആല കാര്യങ്ങള് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആക്കിത്തരാന്ന് പറയും പക്ഷെ അവരൊരിക്കലും അതൊന്നും അതായത് നമ്മള് പിന്നെ അവര് ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ നമ്മളെ അവര് അവര് നമ്മളെ കണ്ടാപ്പോലും മൈൻഡ് ആക്കുകയില്ല അവര് പറഞ്ഞ കാര്യങ്ങള് ചിലപ്പോൾ അവര് മറന്നിട്ടുമുണ്ടാവും അവർക്ക് പിന്നെ അവരുടേതായ കാര്യങ്ങളും ഇതൊക്കെയായി നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ അവരെന്തായാലും അവര് നമ്മളെ ഒരിക്കലും സഹായിക്കില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം